വയനാട് ജില്ലയിലെ കാലാവസ്ഥയെന്ന് പറയുമ്പോൾ പണ്ട് കാലത്താണെ നല്ല കാലാവസ്ഥയായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാല് വേണ്ട വിധത്തില് മഴ കിട്ടും ആ കാലത്ത് ഇപ്പൊന്ന് പറഞ്ഞാല മഴ കാര്യത്തിന് മഴയില്ല ഇപ്പൊ തന്നെ മഴ ഇല്ലാതെ ഭയങ്കര കഷ്ടപ്പാടാണ് വെള്ളവില്ല കുടിവെള്ളത്തിന് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ മഴക്കാലം എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം പോലെ വന്നാല് അത് ഭയങ്കര കഷ്ടപ്പാടുവാണ് ഈ ഈ ഇപ്രാവശ്യത്തെ വേനൽ മഴ എന്ന് പറയുമ്പോ ഒരു കുറച്ച് ഒരു മൂന്ന് നാല് ദിവസത്തെ മഴയുള്ളു ഇവിടെ വയനാട്ടില് തീരെ മഴ കുറവാണ് പിന്നെ മഴക്കാലംന്ന് പറയുമ്പോൾ ജൂൺ മുതല് ജൂൺ മുതല് ഒക്ടോബർ നവംബർ വരെ ഏകദേശം മഴ പെയ്യുന്നതാണ് ഇപ്പോൾ ഒന്ന് ഇപ്പോൾ അതിനും വേണ്ടി മഴയും ഇല്ല കാലാവസ്ഥയെല്ലാം ഭയങ്കര മോശാണ് വെള്ളത്തിനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം ഇല്ല വേനൽ മഴയും കിട്ടീട്ടില്ല അധികം അല്ലാതരം മഴയില്ലാത്ത കാരണം ഭയങ്കരാണ് ഇപ്പൊ ഈ ഇടവ മാസക്കാലത്തില് നല്ല മഴ പെയ്യേണ്ടതാണ് ഇടവം മിഥുന മാസം കർക്കിടകത്തിലെല്ലാം മഴ പെയ്യണ്ട ഇപ്പൊ മഴയില്ല ഇടവം ഇടവ മാസമായി ഒരു മഴയില്ല ഭയങ്കര വെള്ളത്തിനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിയ കാലാണ്